ഹലോ ഷാൻ സാറല്ലേ സാറേ ഗുഡ് മോർണിംഗ് ഇത് സൈന്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ അല്ലേ

എൻ്റെ പേര് ജോയ് എന്നാണ് അരുണിൻ്റെ ഫാദറാണ് സാറെ എനിക്ക് എന്നാ ഒരു കാര്യ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവനിപ്പം ബികോം ഫൈനൽ ഇയർ ആണല്ലോ അപ്പം എന്നാ അവന് ഈ ഒരു കരിയർ എന്ന് ഗൈഡൻസ് കൗൺസിലിംഗിനെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ കോളേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാറേ ഇത് കഴിഞ്ഞിട്ട് അവനൊരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടേൽ അവൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് വിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം അതുവായിട്ട് അതിനോട് ബന്ധിച്ച് അനുബന്ധിച്ച് സ്പ്രിംഗ് ഗൈഡൻസോ അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗോ വല്ലതും ഒക്കെ ഉണ്ടോ സാറെ അതിനെ പറ്റിയൊന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്

ഉവ്വ ഉവ്വ സാറേ എന്നാൽ എന്നാണ് സാർ സാർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു പറഞ്ഞായിരുന്നു

ഉവ്വ ഉവ്വ

ഉവ്വ് ഉവ്വ് സാർ

ആ ആയിക്കോട്ടെ സാർ ഓക്കെ സാർ താങ്ക്യൂ താങ്ക്യൂ സാർ എങ്ങനെ ആയാലും ഈ വിവരങ്ങളറിഞ്ഞതിന് ഒത്തിരി സന്തോഷം ഓക്കെ സാർ ഉവ്വ ഉവ്വ അതെ അതെ അറിയും അല്ല ഉവ്വ

അല്ല അവന് അവന് അതിപ്പം എന്നാ അവനിങ്ങനെ ഈ ഗൈഡൻസ് കിട്ടി അവനിങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഉള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് അവനൊത്തിരി പ്രയോജനപ്പെടും അതിനു വേണ്ടിയിട്ടായിരുന്നു അവനത് എന്നാ ഞാ പറയുകയും ചെയ്തു എനിക്ക് ഏതെങ്കിലും ഒരു ഇതുപോലുള്ള കരിയറായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയായിരുന്നെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് പറയുകയും ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സൗകര്യം

ആയിക്കോട്ടെ സാറെ

ഓക്കെ സാർ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ ഞാനതവനോട് പറഞ്ഞോളാം ഓക്കെ